കർഷകരുടെ അവസ്ഥകൾ മാധ്യമങ്ങൾ എത്രത്തോളം സത്യസന്ധത പുലർത്തുന്നുവെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ആൻസറേ പറയാൻ സാധിക്കത്തുള്ളൂ കാരണം എല്ലാ മാധ്യമങ്ങളും ഒരേ രീതിയിൽ കൃഷിക്കാരുടെ അവസ്ഥ ചർച്ച ചെയ്യുന്ന സമയത്ത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയോ അത് സംരഷണം ചെയ്യുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടെന്നുള്ളതായിട്ട് തോന്നീട്ടില്ല പലതും പലരും രാഷ്ട്രീയ ചായ്വോടുകൂടിയിട്ട് കാര്യങ്ങൾ പറയുകയും മുന്നോട്ട് ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഭരിക്കുന്ന ഭരണത്തോട് ചേർന്നതുകൊണ്ട് ഉള്ള ഒരു സംരക്ഷണം നടത്താറുണ്ട് അതുപോലെന്നെ മുതലാളിമാരുടെ ചായ്വോടുകൂടിയിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങനെയും ഇത് ഈ മാധ്യമങ്ങൾ ചെയ്തു പോവാറുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിത മനുഷ്യൻ്റെ ജീവന് തുണയായും ജീവൻ്റെ നിലനിൽപ്പിനും കർഷകർ വളരെ അത്യാവിശ്യമായൊരു ഘടകമാണ് കർഷകരില്ലാതെ ഈ പ്രകൃതി തന്നെ നിലനിർത്തും നിലനിന്നുകൊണ്ട് പോകാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും കർഷകരുടെ വലിയ ഒരു സംഭാവന ഇതിൽ എല്ലാ കാലത്തും എല്ലാ മേഘലയിലും ഉണ്ടായാൽ മാത്രമേ നല്ല ആഹാരവും നല്ല വസ്ത്രവും നല്ല രീതിലുള്ള ഒരു ജീവിതാന്തസ്സും നിലനിർത്തികൊണ്ട് പോകാൻ കാർഷകർ വലിയൊരു ഘടകം തന്നെയാണ് എല്ലാവരും ബിസിനസ്സും എല്ലാവരും ഉദ്യോഗസ്ഥരും ജോലിക്കാരും ഒക്കെ ആയി വർദ്ധിച്ചാൽ ഉള്ളിലോട്ടെന്തെങ്കിലും ആഹാരം ചെല്ലണമല്ലോ ആർക്കും ആഹാരം ചെല്ലാതെ ജീവിതാന്തസ്ഥ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ വായു ഭക്ഷിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അതിൽ ആഹാരവും വെള്ളവും ഒക്കെ ഇതിൽ പ്രധാന ഘടകമാണ് അത് നല്ലത് കിട്ടണമെങ്കിൽ അത് കർഷകരുടെ അധ്വാനം തീർച്ചയായിട്ടും സ്ലാഹനീയമാണ് അതിനെ നമ്മൾ വിലകുറച്ച് കാണാൻ സാധിക്കത്തില്ല എന്ത് പറഞ്ഞാലും കർഷകർക്കൊരു സപ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുൻകാലങ്ങളെ അപേഷിച്ച് നോക്കിയാൽ ഇപ്പോൾ നല്ല ഒരു സപ്പോട്ട് ഗവണ്മെൻ്റ് തലത്തിലും കിട്ടുന്നുണ്ട് പക്ഷെ അത് കർഷകർക്ക് നേരിട്ട് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഇടനിലക്കാരായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അതിൻ്റെ പൗരപ്രമാണികൾ ഒക്കെ അടിച്ചു മാറ്റുകയാണ് ഇന്നത്തെക്കാലത്ത് കണ്ടുവരുന്നത് അതൊക്കെ വ്യക്തമായിട്ട് ഒന്ന് അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ അതിനെ വിരൽ ചൂണ്ടാനോ ഒന്നും മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ എല്ലാ മാധ്യമങ്ങളും നല്ല രീതിയിലാണെന്നും പറയാൻ പറ്റില്ല ഇതിലെല്ലാം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ളതിനെ ഉദ്ദേശിച്ച് പറഞ്ഞത് കാരണം ഓരോ മാധ്യമങ്ങൾക്കും ഓരോ രീതിയിൽ ഏതെങ്കിലുമൊരു പാർട്ടിയോടോ ഏതെങ്കിലുമൊരു മതത്തോടോ ഒക്കെ ചായ്വുണ്ടാവും അതിനനുസരിച്ച് വ്യത്യാസങ്ങളും വരുന്നുണ്ട് എന്നിരുന്നാലും ജീവൻ്റെ നിലനിൽപ്പിന് കർഷകർ വളരെ അത്യാവിശ്യമാണ് എന്ന് ഉള്ള മനസ്സിലാക്കികൊണ്ട് അവരെ സപ്പോട്ട് ചെയ്തുകൊണ്ട് പോകുന്ന അധികം മാധ്യമ സുഹൃത്തുക്കളാണ് ഇവിടെ ഉള്ളത് അത് പറയാതിരിക്കാൻ വയ്യ എന്തുവായാലും നമ്മുടെ ഞങ്ങളെ ഈ ഏരിയ സംബന്ധിച്ച് പറഞ്ഞാൽ കാർഷിക വൃത്തിയിൽ മെയിനെന്ന് പറഞ്ഞാൽ നെല്ല് നെല്ല് തെങ്ങ് ഇതാണ് അതില് ഏറ്റവും കൂടുതൽ നെല്ലിനെ ആശ്രയിച്ച് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കുട്ടനാട്ടുകാർ അവർക്ക് തീർച്ചയായിട്ടും ഗവൺമെൻ്റിൻ്റെ നല്ലൊരു സപ്പോട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കൃഷി ചെയ്യാനും അതിൻ്റെ വിളവെടുക്കാനും അത് പരിപാലിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതിനും ഗവൺമെൻ്റിൻ്റെ ഒരു സപ്പോട്ട് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നല്ലൊരു സപ്പോട്ട് തരുന്നുണ്ട് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എടയ്ക്കുള്ള ഉദ്യോഗസ്ഥർ കാര്യം ഈ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എല്ലാ ഉദ്യോഗസ്ഥരെ അടച്ചാക്ഷേപിക്കാനും പറ്റത്തില്ല അതിൽ നല്ല ഉദ്യോഗസ്ഥരുമുണ്ട് ഇത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ നമ്മൾ തീർത്തും ഇതു ചെയ്യാൻ പറ്റത്തില്ല അതിനകത്ത് തന്നെ കുറച്ച് നല്ലതും കുറച്ച് ചീത്തയും അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള ഒരു രീതിയിൽ രണ്ട് രീതിയിലുള്ള ആൾക്കാരും ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നയിട്ടുള്ളത്